ഹലോ ആശ ചേച്ചി അല്ലേ

ചേച്ചി അഥീന ആയിരുന്നു ചേച്ചി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് തുണി കൊണ്ടു തന്നില്ലായിരുന്നോ ആത് ചേച്ചി തയ്ച്ചു തുടങ്ങിയായിരുന്നോ ആ ചേച്ചി അതെ അത് കുറച്ചു മാറ്റി തയ്ക്കാനായിട്ടായിരുന്നു ഈ എന്ന ബാക്കിലെ സിബ് ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പക്ഷേ സിബ് ഒക്കെ വേണം ചേച്ചി ആഹ് പിന്നെ ആണെങ്കിൽ കൈ ഞാൻ പറഞ്ഞു ഫുൾ കൈ തയ്പ്പിക്കാനായിരുന്നു പറഞ്ഞത് പക്ഷേ അത്രയും കൈ വേണ്ട മുട്ടിൻ്റെ അത്രയും മതി അല്ല അല്ല ചേച്ചി തുണി ഉണ്ട് അത്യാവശ്യം തുണിയുണ്ട് ഞാൻ രണ്ടര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അത് ഉണ്ട് അപ്പൊൾ ഫുൾ കൈ വേണ്ട ഫുൾ കൈ വേണ്ട മുട്ടിൻ്റെ അത്രയും കൈ മതി പിന്നെ ആണെങ്കിൽ ഞാൻ നെക്ക് പറഞ്ഞത് വി നെക്ക് ആണ് അതും വേണ്ട എനിക്ക് ആണെങ്കിൽ സ്ക്വയര് ഷേപ്പ് നെക്ക് മതി ചേച്ചി അത് എന്താണെന്നു വച്ചാൽ ഞങ്ങൾ കോളേജിൽ ഞാൻ അവളുമാരുടെ അടുത്ത് ചെന്നപ്പോഴത്തെക്കും അവളുമാർ എല്ലാവരും ഡിസൈൻ മാറ്റി അന്നേരത്തെ ഇതിൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തയ്പ്പിക്കാറല്ലേ ആ അത് എന്നായാലും ഇനി ഇപ്പം കുഴപ്പമില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പാൻ്റൊക്കെ പാൻ്റ് കുറച്ചു ലൂസ് ആക്കി തയ്ച്ചാൽ മതി കേട്ടോ ചേച്ചി ഞാൻ ആണെങ്കിൽ ഒത്തിരി ലൂസ് ആക്കാതെ എന്ന് പറഞ്ഞിരുന്നു അപ്പം കുറച്ചു ലൂസ് ആക്കിക്കോ കേട്ടോ എലാസ്റ്റിക്ക് മതി എലാസ്റ്റിക്ക് മതി ചേച്ചി അപ്പം ഇനി ഇനി അപ്പം നെക്ട് നമ്മൾ മാറ്റുമ്പോൾ പുതിയതായിട്ട് അളവ് എടുക്കേണ്ടി വരുമോ

ചേച്ചി ഇപ്പം ഞാൻ വരുന്ന സമയത്ത് കാണുമോ ഞാൻ അഞ്ചു മണി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ കഴിയൂകയുള്ളൂ ഞാൻ ഇവിടെ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു അഞ്ചര ഒക്കെ ആവും ആണോ ആ എന്നാൽ ഞാൻ കയ്യറിക്കോളാം അവിടെ ആ കഴുത്ത് അല്ല കഴുത്ത് വി വേണ്ട സ്ക്വയർ ഞാൻ വരുമ്പോഴത്തേക്ക് ചേച്ചി അത് എഴുതി വച്ചാൽ മതി പിന്നെ ആണെങ്കിൽ ചേച്ചി എനിക്ക് ഇത് ഞായറാഴ്ചത്തേക്ക് വേണം കേട്ടോ ആ ഞായറാഴ്ച വേണം എനിക്ക് തിങ്കളാഴ്ചയാണ് പരിപാടി ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞായറാഴ്ച എനിക്ക് സംഭവം വേണം കേട്ടോ എനിക്ക് തിങ്കളാഴ്ചയാണ് പരിപാടി ആ പിന്നെ ഒരു ആഴ്ച സമയം ഉണ്ടല്ലോ അങ്ങോട്ടിരുന്ന് തയ്ക്ക് അത് തന്നെ ചേച്ചിക്ക് ഇപ്പം തിരക്കാണ് കുറേ വർക്ക് വരുന്നുണ്ടോ ആ പെരുന്നാളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും എല്ലാവരും ഈ തയ്ക്കാനായിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് അങ്ങനെ ഒരാളെ കൂടി നിർത്തിയാൽ ആ മുരിക്കാശേരിയിലെ ആ ജാൻസി ചേച്ചി ആമണെങ്കിൽ ഇപ്പോൾ ഹിന്ദിക്കാരെ വച്ച് കൂടെ തയ്പിക്കുന്നത് ചേച്ചി ഇങ്ങനെ തന്നെ തയ്ക്കുനത് കൊണ്ടല്ലേ അതേനെ ഹിന്ദികാർ പുതിയ ഹിന്ദികാരെ ആക്കി അപ്പം നല്ല സൂപ്പർ തയ്യലാണ്

എനിക്ക് ഞായറാഴ്ച എനിക്ക് ഞായ ആ എനിക്ക് കല്യാണത്തിനെ പോവുകയാണ് എനിക്ക് ഞായറാഴ്ച ഒരു ഒരു ആറ് മണി ഏഴ് മണിക്കായിട്ട് തന്നാൽമതി അത് കുഴപ്പമില്ല ഇച്ചിരി ലൈറ്റ് ആയാലും കുഴപ്പമില്ല എനിക്ക് ഞായറാഴ്ച തന്നെ കിട്ടണം എന്ന്

എത്ര രൂപയാണ് എൻ്റെ പൊന്നോ ആയിരം രൂപയോ ആ ജാൻസി ചേച്ചിയുടെ അടുത്ത് അഞ്ഞൂറ് രൂപയേ ഉള്ളല്ലോ ആ അതെ അതെ അവര് ഭായ്മാർക്ക് വരെ കൊടുക്കണയിട് അവിടെ അഞ്ഞൂറ് രൂപയേ ഉള്ളു ഇവിടെ എന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ഒരാൾക്കു വേണ്ടി ആയിരം രൂപയോ ഹ് അത് എനിക് അറിയാം എന്തായാലും കുഴപ്പില്ല എനിക്ക് നല്ലത് പോലെ പറഞ്ഞത് പോലെ തയ്ച്ചു തന്നാൽ മതി ആ ചേച്ചി എന്നായാലും ഞായറാഴ്ച തന്നെ തരണം ചേച്ചി മറക്കരുത് ഞാൻ ഇന്ന് ഇന്ന് തന്നെ വന്നു കൊണ്ടുവന്ന സാധനങ്ങൾ തന്നേക്കാം പിന്നെ ലൈനിംഗ് ചേച്ചി അപ്പം ഞാൻ ലൈനിങ് രണ്ട് മീറ്റർ എടുത്തിട്ടുള്ളൂ അപ്പോളോ രണ്ടര മീറ്റർ വേണോ കൈക്ക് ലൈനിങ് വയ്ക്കണോ എനിക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല പിന്നെ വേണമെങ്കിൽ വയ്ക്കാം ആ അലെങ്കിൽ ലൈനിങ് വയ്ക്കേണ്ട അങ്ങനെ ആണെങ്കിൽ രണ്ട് മീറ്റർ മതിയോ മ മ്മ് മ്മ് മ് ആ പിന്നെ സ്ക്വയര് കഴുത്ത് ആയതുകൊണ്ട് വലിയ ഡിസൈൻ ഒന്നും വയ്ക്കേണ്ട ചുമ്മാ നോർമൽ കഴുത്ത് മതി ആ വേണമെങ്കിൽ കുറച്ചു മുത്ത് മുത്ത് പിടിപ്പിച്ചത് അപ്പം അതിന് എക്സ്ട്രാ കാശ് വേണോ ആ ആ എന്തെങ്കിലും ആവട്ടെ എങ്ങനെ എങ്കിലും ഒക്കെ തൈക്ക് ആ ആ അ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ കൊണ്ടു തന്നേക്കാം എന്നിട്ട് വരുമ്പോൾ ബാക്കി അളവ് എടുത്താൽ മതി

ആ ശരി ആ എന്നാൽ ശരി ചേച്ചി